ഹലോ കസ്റ്റമർ കെയറല്ലേ എൻ്റെ സിം ജിയോയാണ് അപ്പോള് നേരത്തെ ഞാൻ റീചാർജെയ്തോണ്ടിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്പതു രൂപയ്ക്കായിരുന്നു പക്ഷെ ഇപ്പോള് അത് കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപയൊക്കെ ആയിട്ടുണ്ട് അപ്പോള് പെട്ടെന്നുള്ള ഇങ്ങനെ ഇൻക്രീസ് കാരണം അത് പോസിബിളല്ല കാരണം പെട്ടെന്ന് നമ്മള് ഒരത്യാവശ്യം വന്ന് റീ ചാർജ് ചെയ്യുമ്പോഴേക്കും എന്താ കറക്റ്റ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ടല്ല ഇപ്പോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോള് പെട്ടെന്നിങ്ങനെ എമൗണ്ടിന് വ്യത്യാസം വരുക ഇത് അത്ര സ്വീകാര്യമല്ല സത്യം പറഞ്ഞാല് അപ്പോള് ഇത് ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങള് നിങ്ങള് വരുത്തുന്നുണ്ടെങ്കില്ത്തന്നെ അതു മുൻകൂട്ടി കസ്റ്റമേഴ്സിനെ കുറച്ച് കസ്റ്റമേഴ്സിനെ മുൻകൂട്ടി അറിയിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലുമൊരു പ്ലാ ൻ ചെയ്യുവാണെങ്കിലത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഉപഭോക്താക്കൾക്ക് അപ്പോള് അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം ഇപ്പോള് ഇപ്പോഴത്തെ ഈ പ്ലാനിങ്ങനെ ഒരു പെട്ടന്നൊരു വ്യത്യാസം വന്നതുകൊണ്ടിട്ട് അത് ബാക്കിയുള്ളവർക്കുംകൂടെ അഫോർഡെയ്യാൻ പറ്റുന്ന രീതിക്ക് അല്ല അതുകൊണ്ടെന്തെങ്കിലും ഇളവോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിക്കുമോ അതിനെക്കുറിച്ചെനിക്കറിയാൻ താൽപര്യമുണ്ട് അപ്പോള് അതു നടക്കുന്നതാണെങ്കില് കുറച്ചുംകൂടി നല്ലതായിരിക്കും ബാക്കിയുള്ളവർക്ക്